കുട്ടികളോട് ഒഴിവ് സമയങ്ങളിൽ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് കാരണം അവരുടെ അവരുടെ കൂട്ടാളികളെ കൂട്ടി അല്ലെങ്കിൽ അവരുടെ രീ അവർക്ക് പറ്റുന്ന ആൾക്കാരെ കൂട്ടീട്ട് അവർ ഒരുപാട് രീതിയിലുള്ള പല പല കളികൾ ഇന്ന് കളിക്കുന്നുണ്ട് പണ്ടൊക്കെയാണെങ്കിൽ ക എന്താ പറയുക തൊട്ടും പാച്ചില് കുറ്റ് മാറിക്കളി അങ്ങനെ പല രീതിയിലുള്ള കളികളുണ്ട് ഇന്ന് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ കുട്ടികൾ ചെറിയ രീതിയിൽ അതിലേക്ക് മാറിയിട്ടിണ്ട് എന്നിരുന്നാൽ പോലും അവർ അവരുടെ എന്താ പറയുക അവരുടെ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് കാൽപന്ത് കളിയും ക്രിക്കറ്റും എന്താ പറയുക ഇപ്പോഴും തൊട്ടും പാച്ചിലും കളി കളിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ അവരുടെ സമയം കളയാൻ വേണ്ടീട്ട് കുട്ടികൾ വിദ്യാലയങ്ങളീന്നും വിട്ട് വന്ന് കഴിഞ്ഞാൽ എന്താ അവരുടെ അവരുടെ ഒരു അവർക്ക് പറ്റുന്നൊരു ആൾക്കാരെ കൂട്ടീട്ട് അവർ ഇപ്പോഴും കളിക്കാറുണ്ട് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചെറിയ ഇപ്പം ഞാൻ എന്താ പറയുക എൻ്റെ ചെറിയ ഒരു ഇരുപത് വയസ്സിൽ വരെ ഞാൻ തൊട്ടും പാച്ചില് കളി കളിച്ചിട്ടുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ കുടുംബത്തിനേം കൂട്ടീട്ടൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പം കുട്ടികാൽ അവരുടെ സമയം കളയാനും അവർക്ക് സന്തോഷം കണ്ടെത്താനും അവർ ചെയ്യുന്നതും അവരുടെ അവർക്ക് പറ്റുന്ന ആളെ കൂട്ടീട്ട് കളിക്കാറുണ്ട്